കേരളത്തിൽ സന്ദർശകർക്ക് സന്ദർശിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള ടൂറിസ്റ്റ് അല്ലെങ്കിൽ പല തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് അതിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തുറയെന്ന് പറഞ്ഞ സ്ഥലത്തെ ഹിൽ പാലസ് എന്ന് പറയുന്നത് അവിടെയാണെങ്കിൽ എന്താ പറയാ ഇത്പോലെ ഈ കുറെ പുരാവസ്തു അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നാണെങ്കിൽ അങ്ങനെ എൻ പുര കാണാനായിട്ടാണെങ്കിലും കുറെ കാഴ്ചകളും പുരാവസ്തു അങ്ങനെയുള്ള കുറെ ഐറ്റംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് നമുക്കാണെങ്കിൽ എന്താ പോയി അവിടെ ഇരുന്ന് നമുക്ക് കണ്ട് എല്ലാം കണ്ട് നമുക്ക് സന്തോഷിച്ച് എല്ലാം വരുന്ന രീതിയിലാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആളുകളാണെങ്കിൽ അവിടെ വന്ന് ഇത് കാണുന്നു കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള ആൾക്കാർ ഇതന്വേഷിച്ച് വന്ന് കാണാറുണ്ട് പിന്നെ സിനിമകളൊക്കെ ഷൂട്ടെയ്തിട്ടുണ്ട് അവിടേം കുറെ കുറെ സിനിമകളാണെങ്കിൽ അവിടെ ഷൂട്ടെയ്തിട്ടൊണ്ട് ഈ ഒരു പുരാതന രീതിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ആ ഒരു ഇതിലാണ് ആ ഒരു പാലസാണെങ്കിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് നമുക്കാണെങ്കിൽ എന്താ ഒരു പഴയ രീതിയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ കേരളം പണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അവരുടെ കിരീടം വാൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും എല്ലാം ആ ഒരു രീതിയിൽ എല്ലാം വെച്ച് കൊണ്ട് ഉള്ള ഒരു മ്യൂസിയമാണത്